എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മള് ഞാന് പഠിച്ച് ഇറങ്ങിയത് തന്നെയാണ് എൻ്റെ നേട്ടം എനിക്ക് പഠിച്ച് ഇറങ്ങിയ പാടെ ജോലി കിട്ടി ഞാൻ എം ബി ബി എസ് ആണ് പഠിച്ചത് പിന്നെ അതായത് ഇപ്പം ഞാൻ പിന്നെ അതായത് ട്രെയിനിങ്ങിന് വേണ്ടി കയറി ഇരിക്കുകയാണ് എന്നാലും അത്യവശ്യം സാലറി ഒക്കെകിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാ എൻട്രൻസ് വഴി തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല പക്ഷേ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ അവര് തന്നെയാണ് ചെയ്യുന്നത് അപ്പം വീട്ടുകാരെ വലിയ ബുദ്ധിമുട്ടിക്കാണ്ട് പഠിക്കാൻ പറ്റി അപ്പോൾ വലിയ ചെലവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ബി ബി എസ് ന്റെ അഞ്ച് വർഷം അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെയാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ നമ്മള് ഓരോ രോഗികളെ നോക്കുമ്പോൾ ഒക്കെ നോക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ വീട്ടുകാർക്ക് വലിയ ഒരു സന്തോഷമാണ് പഠിച്ച് പാസ്സ് ആയി ഒരു ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ അവർക്കും ഒരു അഭിമാനം ആണ് അത് തന്നെയാണ് എനിക്കും അഭിമാനം തോന്നുന്ന ഒരു നേട്ടം